വര എന്നുള്ളത് എനിക്ക് ജന്മന ലഭിച്ച ഒരു കഴിവാണ് ഞാൻ വേറെ ആരിൽ നിന്നും

പല വസ്തുക്കളും കുത്തി വരയ്ക്കാനും അതുപോലെ അത് കളർ ചെയ്യുവാനും മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് എൻ്റെ സമയം ഉപയോഗിച്ചിരുന്നത് നമുക്ക് അറിയാൻ പാടുണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് കളറിംഗ് പുക്സ്തകങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു സംഭവം ഈ ഒരു നമുക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ഗഡ അ ഇങ്ങനെ ഒരു നിർദ്ദേശം അതൊരു ഗൈഡ് ലൈൻ നമുക്കൊരു പുസ്തകത്തിലൂടെ ലഭിക്കുക എന്നുള്ളത്

എൻ്റെ ബൺ റൂമിലാകട്ടെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ഒരു കഴിവിനെ ഈ ഒരു വര എന്നുള്ള കഴിവിനെ ഞാൻ പ്രകടമാക്കിയിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ ഒരുപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് നിറച്ചതാണ് എൻ്റെ റൂം എന്നുള്ളത്

സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പൂർണമായിട്ട് ഒരു വസ്തു നമുക്ക് ആദ്യം തന്നെ വരയ്ക്കാൻ സാധിക്കണം എന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അച്ചടി പകർപ്പ് നമ്മൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ

ഒരുപാട് പെൻസിലുകളിൽ നിന്ന് വളരെ ഷെയ്ഡിങ്ങിനും ഡാർക്ക് ഷെയ്ഡിങ്ങിനും ലൈറ്റ് ഷെയ്ഡിങ്ങിനും ഒക്കെ